പ്രിയമുള്ളവരെ ഒരു വിനോദ സഞ്ചാരിയോടൊപ്പമുള്ള എൻ്റെ അനുഭവമാണ് ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ നിന്നിറങ്ങി കാറിൽ പോകുമ്പോൾ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ വച്ച് ഒരാൾ കൈ കാട്ടുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അത് ആ സമയം എന്ന് പറയുന്നത് രാവിലെ ഏഴ് മണിയായിരുന്നു അദ്ദേഹം കൈകാട്ടി ഞാൻ കാർ നിർത്തി കാരണം രാവിലെ അല്ലെ അപ്പോൾ വണ്ടികളെല്ലാം വളരെ കുറവാണ് ഓട്ടോറിക്ഷ ഇല്ല അതേപോലെ തന്നെ ബസ്സുമില്ല ആൾക്കാർ നന്നെ കുറവാണ് ഒരു അന്യ ഒരാൽ കാണിക്കുമ്പോഴാണ് സ്വാഭാവികമായും ഒരു ഹെൽപ്പിംഗ് മെൻ്റാലിറ്റിയുള്ളത് കൊണ്ട് തന്നെ ഞാൻ നിർത്തി അത് നിർത്തി നിർത്തി അപ്പോഴാണ് അയാൾ കൈ കാട്ടിയ ആളെ അടുത്ത് ഞാൻ പോയി അപ്പം അയാൾ പറഞ്ഞു ഞാൻ മായിപ്പാടി എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നുള്ളത് എനിക്ക് മായിപ്പാടിയിൽ പോകണമായിരുന്നു പറഞ്ഞു അതേ പോലെ ഞാൻ ഇപ്പോൾ ഈ ഭാഗത്ത് അതായത് ഞങ്ങളെ ഭാഗത്ത് ഈ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് എവിടെയാണ് നല്ല ഒരു സ്ഥലം സന്ദർശിക്കാൻ പറ്റിയതെന്ന് കൂടെ എന്ന് ചോദിച്ചു അങ്ങനെ അതിൽ പിന്നെ അയാൾ പറഞ്ഞതിൽ ഞാൻ ഒരു യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പല വിനോദ സഞ്ചാര കേന്ദ്രങ്ങളും നോക്കുന്ന വച്ച് പോയിക്കോണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അത് കൂടെ തന്നെ വിനോദചനളുടെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു അപ്പോൾ അദ്ദേഹം ചോദിച്ചു ഇതിനകത്ത് അടുത്തുള്ള എവിടെ എങ്കിലും ഒന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഞാൻ ഇങ്ങനെ ചോദിച്ചത് കൊണ്ട് ആ രാവിലെ സമയമായത് കൊണ്ട് തന്നെ ഞാൻ അയാളെ ഡ്രോപ്പ് ചെയ്യാൻ ഓക്കെ എന്ന് പറഞ്ഞു അദ്ദേഹത്തെ കാറിൽ കയറ്റി എൻ്റെ നാടിന് അതായത് കാസർകോഡ് റെയിൽവേ സ്റ്റേഷന് അടുത്തുള്ള തളങ്കര ഹാർബറും പരിസരവുമാണ് ഞാൻ അയാളെ കൊണ്ട് പോവാൻ അങ്ങനെ പോവാൻ വേണ്ടി ഞാൻ കാറിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം സ്വാഭാവികമായി അദ്ദേഹവുമായി ഞാനും നല്ല ഒരു സംസാരിച്ചു സംസാരിച്ചി ട്ട് ആവുമ്പം നല്ല ഒരു ബന്ധം ക്രീയേറ്റായി അങ്ങനെ ഞാൻ ആ നമ്മളെ ഹാർബർ സ്ഥലത്ത് എത്തി അവിടെ അയാളെ ഡ്രോപ്പ് ചെയ്ത് ഞാൻ വരണ്ടതായിരുന്നു സ്വാഭാവികമായും പക്ഷെ അദ്ദേഹത്തിൻ്റെ സംസാര ശൈലിയും ഞങ്ങൾ നല്ല ഒരു അടുപ്പക്കാരെ പോലെയായി അദ്ദേഹത്തിന് നാൾ തളങ്കര ഹാർബറും ആ പരിസര പ്രദേശങ്ങളും കാണിച്ച് കൊടുത്തു അതിൻ്റെ തളങ്കര ഹാർബർ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ ബ്രിട്ടീഷുകാർ പണിത ഇതാണ് ഹാർബറാണ് കൂടാതെ പണ്ട് കാലങ്ങളിൽ ഒരുപാട് കപ്പലുകളും പായ് കപ്പലുകളും ഒക്കെ വന്ന് നങ്കൂരമിട്ടിരുന്ന സ്ഥലമായിരുന്നു ഒരുപാട് വിനോദ സഞ്ചാരികളും അതേപോലെ വിദേശികളും വന്ന ഒരു സ്ഥലമായിരുന്നു അതൊക്കെ അയാൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു പക്ഷെ ഇന്ന് അവിടെ ശോഷിച്ച് ശോഷിച്ചിട്ട് ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയാണ് അതൊക്കെ അദ്ദേതെ കാണിച്ചു അദ്ദേഹത്തിന് സ്ഥലം ഇഷ്ടപ്പെട്ടു അങ്ങനെ അയാളോട് സംസാരിക്കാനുള്ള ഇങ്ങനെ സംസാരിച്ചു വേറെ എവിടെയാണ് നല്ല സ്ഥലങ്ങളുണ്ട് അങ്ങനെ ഞാൻ ഇങ്ങനെ സംസാരിച്ചപ്പോൾ കാസർഗോഡ് കാര്യമായിട്ട് സ്ഥലങ്ങളൊന്നുമില്ല ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ മാത്രമേയുള്ളു കാസർകോഡ് എന്നും അവഗണിക്കപ്പെട്ട ഒരു ജില്ലയാണ് അത് കൊണ്ട് തന്നെ ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു അത് താങ്കളുടെ നിഗമനം തെറ്റാണ് ഞാൻ നിങ്ങൾക്ക് വേറെ ഒരു സ്ഥലം പറഞ്ഞ് തരാം അത് വളരെ നല്ല ഒരു സ്പോണ്ടെനിയസായിട്ടൊരു നല്ലൊരു സ്ഥലമാണ് പോകേണ്ട സ്ഥലമാണ് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് എന്ന് ഞാൻ ചോദിച്ചു അതെയോ കാസർകോഡ് ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടോ അത് എവിടെയാണ് ഒന്ന് അറിയാൻ എനിക്കും വളരെ ആകാംക്ഷയായി അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്കറിയാമോ മ്മ ഉപ്പള എന്ന സ്ഥലത്ത് നല്ല ഒരു വിനോദ സഞ്ചാര കേന്ദ്രം ഉണ്ട് വിനോദ സഞ്ചാര കേന്ദ്രമല്ല നല്ല ഒരു സ്ഥലമുണ്ട് അവിടെ അവിടെ പോകുകയാണെങ്കിൽ ഒരുപാട് എക്സ്പ്ലോറ് ചെയ്യാൻ സ്ഥലങ്ങൾ കാണാൻ എന്തിനേറെ പറഞ്ഞു ഊട്ടി എന്ന സ്ഥലത്തിന് മുകളിൽ കവച്ച് വയ്ക്കുന്ന തലത്തിലുള്ള നല്ല ഒരു വിനോദ സഞ്ചാര കേന്ദ്രം ഞാൻ ആകെ ഷോക്കായി കാസർഗോഡ് ഇങ്ങനെ ഒരു നഗരമോ അതെ അങ്ങനെ അദ്ദേഹവുമായിട്ട് നന്ന് ഞാൻ കുറച്ച് ഫ്രീ ആയിരുന്നു ഇത് കൊണ്ട് തന്നെ അദ്ദേഹത്തോടൊപ്പം ഞാൻ വരാൻ പോവാൻ റെഡിയായി അങ്ങനെ അയാൾ എന്നോട് പറഞ്ഞത് റാണിപുരം എന്ന ലൊക്കേഷൻ വയ്ക്കാൻ വേബ്ബണ്ടിയിട്ടാണ് റാണിപുരം ലൊക്കേഷൻ വച്ച് ഞങ്ങൾ പോയി ഏകദേശം ഒരു അമ്പതോളം കിലോമീറ്റർ ദൂരെയാണ് കാസർഗോഡ് നിന്ന് റാണിപുരം പോയിട്ട് അവിടെ നിന്ന് മല കയറാനുണ്ട് ആ മല കയറിയെങ്കിൽ മാത്രം റാണിപുരം എത്തും ആ റാണിപുരം മല ഒരുപാട് ഏകദേശം ഒരു മണിക്കൂറോളം മല കയറിയിട്ടാണ് നമ്മൾ ആ റാണിപുരം എത്തിയത് റാണിപുരം എത്തിയ ശേഷം നമ്മൾ മനസ്സിലാവുന്നത് കാസർഗോഡ് ഒരു സ്വർഗ്ഗമാണ് ഇട്സ് എ ഗോഡ്സ് ഓൺ സിറ്റി അങ്ങനെ വേണമെങ്കിൽ ഞമക്ക് പറയാം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്ന തരത്തിലാണ് അവിടെ കാണുമ്പോൾ ഒരു മിനി ഊട്ടിയിൽ പോയ ഒരു അവസ്ഥയായിരുന്നു ഊട്ടിയേക്കാളും സൗന്ദര്യവുമുണ്ട് അത്ര തന്നെ നല്ല കാഴ്ചയായിരുന്നു രാവിലെ ആയത്കൊണ്ട് തന്നെ നമ്മുടെ സൂര്യൻ്റെ ഈ കാഴ്ചകളും അതേപോലെ തന്നെ താഴെ ആ ലോകം കാണാൻ പറ്റി നല്ല ഒരു നല്ല തണുപ്പുള്ള ഒരു പ്രഭാതമായിരുന്നു അത് അതുപോലെ തന്നെ ഊട്ടിയിൽ പോയ ഒരു പ്രതീതിയാണ് കിട്ടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ആ സ്ഥലത്തെക്കുറിച്ച് എനിക്ക് മുമ്പ് ഇങ്ങനെ കേട്ടിട്ടുള്ളതല്ലാതെ ഒന്നും അറിഞ്ഞില്ല അത് ഫീല് ചെയ്തത് ആ പ്രസ്തുത വ്യക്തി അദ്ദേഹത്തിൻ്റെ പേര് അജിത്ത് എന്നാണ് അജിത്തുമായിട്ടുള്ള ബന്ധം കൊണ്ടാണ് എനിക്ക് അങ്ങനെ ഉള്ള സ്ഥലം മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മളെ നാട്ടിലാണെങ്കിൽ പോലും പലപ്പോഴും നമ്മൾ ഇങ്ങനെ ഉള്ള സ്ഥലങ്ങൾ മനസ്സിലാവാതെ പോവുന്നുണ്ട് പക്ഷെ വേറെ ടൂറിസ്റ്റുകാർ പറയുമ്പോഴാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാസർകോഡ് ഉണ്ട് എന്ന ഇത് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പം കാസർകോഡ് എന്ന് പറയുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാട് പോലെയാണ് ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് പക്ഷെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നത് പോലെ നമ്മൾ ആരും അതിനെ മൈൻഡ് ചെയ്യാതെ ഒരവസ്ഥ അല്ലെങ്കിൽ അതിനെ കെയർ ചെയ്യാതെ നമ്മള് പലപ്പോഴും മറ്റു ജില്ലകളിലേക്കൊ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോവുന്നുണ്ട് ഇതുമൂലം ടൂറിസ്റ്റ് ഇനത്തിൽ നമുക്ക് കിട്ടേണ്ട പണം അന്യ സംസ്ഥാനക്കാരോ അന്യ ജില്ലക്കാരോ കൊണ്ട് പോകുന്ന ഒരു ദയനീയ അവസ്ഥയാണ് എന്തുകൊണ്ട് ഇങ്ങനെ പറ്റുന്ന് പറഞ്ഞാൽ

അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള നല്ല സ്ഥലങ്ങൾ ആരും മനസ്സിലാകാതെ പോകുന്നു അത് മുഖാന്തിരം നമ്മൾ മറ്റുള്ള ജില്ലകളിലെ ആശ്രയിക്കുന്ന ഒര് ഗെതികേടിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പ്രതീതി മാറ്റണമെങ്കിൽ സർക്കാറിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള ടൂറിസ്റ്റ് സ്ഥലങ്ങളൊക്കെ മനസ്സിലാക്കാനും അതിന് തദ്ദേശ സംരഭങ്ങൾക്ക് നല്ല സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു